ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങി നല്ലൊരു ബ്രാൻഡാണെന്ന് കരുതിയാണ് ആ ഫോൺ വാങ്ങിയത് നോക്കിയാൽ ആ ഫോൺ സ്റ്റോറേജ് സ്പൈസ് വളരെ കുറവായിരുന്നു കുറച്ച് ഫോട്ടോസ് വീഡിയോസ് സ്റ്റോർ ചെയ്യുന്നതിനുള്ളിൽ ആ സ്റ്റോറേജ് സ്പൈസ് ഫുൾ എന്ന് കാണിച്ചു പിന്നെ അത് ഫോണിൽ ബാറ്ററി നിൽക്കുന്നുണ്ടായിരുന്നില്ല വേഗം ബാറ്ററി ഡ്രൈനാവുന്നുണ്ടായിരുന്നു പിന്നെ ആ ഫോൺ കാൾ ഫോൺ കാൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രണ്ടോ മൂന്നോ മിനുറ്റ് ഫോൺ കാൾ ചെയ്യുമ്പോൾ തന്നെ ഫോൺ നല്ല ചൂടാവാൻ തുടങ്ങി ആ ഫോൺ ഹീറ്റ് കാരണം ബാറ്ററി നിൽക്കാറേയില്ല ആ ഫോണിൽ അതുകൊണ്ട് ഫോൺ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് അതിന്റെ സ്റ്റോറേജ് സ്പൈസും അതിന്റെ ബ്രാൻഡും എല്ലാം പരിശോധിച്ച ശേഷം വാങ്ങുക